ഇപ്പോൾ വയനാട് ജില്ലയുടെ തനതായ പ്രാദേശികരൂപങ്ങളും അതായത് കലാരൂപങ്ങളും കരകൗശല വസ്തുക്കളൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വയനാട് ജില്ലയിലെ മെയിനായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നത് തെയ്യം തിറ അങ്ങനത്തെ കലാരൂപങ്ങളൊക്കെയാണ് കൂടുതലും കണ്ടുവരുന്നത് പിന്നെ ആദിവാസികളുടെ ചില രൂപങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അവർ രൂപം കെട്ടുന്നതും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ അവിടെ എന്താ പറയാ ഒരു കാളിയമ്പലം ഉണ്ട് അപ്പോൾ അവിടെ എന്താ പറയാ കാളിയമ്മയുടെ ഒരു രൂപം കെട്ടുന്നത് ഒക്കെ നമ്മൾ അങ്ങനെ കലാരൂപമായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് സാധാരണ ഇപ്പോൾ വയനാട് ജില്ലയിൽ ഞാൻ സാധാരണ കണ്ടുവരുന്ന രൂപങ്ങൾ പിന്നെ കലാരൂപങ്ങളായിട്ട് പിന്നിപ്പോൾ ഇപ്പോൾ ഉത്സവങ്ങൾക്കൊക്കെ ആണെങ്കിൽ തന്നെ പുറത്തുനിന്ന് മയിലാട്ടം കരകാട്ടം അങ്ങനത്തെ സാനങ്ങളൊക്കെ കുറെ നമ്മൾ കാണുന്നുണ്ട് ഇത്തരത്തിലൊക്കെയാണ് കലാരൂപങ്ങളൊക്കെ കാണുന്നത് പിന്നെ കരകൗശല വസ്തുക്കളായിട്ട് ഇപ്പോൾ വയനാട് ജില്ലക്ക് പറയാനാണെങ്കിൽ എന്താ പറയാ തേങ്ങ കൊണ്ട് എന്താ പറയാ തേങ്ങേൻ്റെ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഓരോ സാധനങ്ങളൊക്കെ ചകിരിൻ്റെ ഒക്കെ സാധനങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ വാഴനാര് കൊണ്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നതും അങ്ങനെത്തെക്കെ ഓരോ ഇതൊക്കെയാണ് ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ ഓല വെച്ചിട്ട് എന്താ പറയാ മെടയുന്ന മെടഞ്ഞ് വീടുണ്ടാക്കുന്നത് പിന്നെ എന്താ പറയാ സൈഡ് മറയ്ക്കാനോക്കെയായിട്ട് ഓല മെടഞ്ഞ് ഇടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പരമ്പ് മുറം കൊട്ട അങ്ങനത്തെ സാനങ്ങളൊക്കെ എന്താ പറയാ കരകൗശല വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലൊക്കെയാണ് സാധാരണ കരകൗശല വസ്തുക്കളൊക്കെ കണ്ടുവരുന്നത്